എൻ്റെ വീടിന് അടുത്തു തന്നെ രണ്ട് ഗ്രന്ഥശാലകൾ ഉണ്ട് എനിക്ക് കൂടുതൽ വായിക്കാൻ ഇഷ്ടമുള്ള ജീവചരിത്രങ്ങളാണ് ഒരുപാട് മഹത് വ്യക്തികളുടെ ജീവചരിത്രം വായിക്കാൻ ഒരുപാട് ഇഷ്ടമാണ് കാരണം അതിൽ നിന്ന് നമുക്ക് ഒരുപാട് മോട്ടിവേഷൻ ലഭിക്കും കാരണം അവരുടെ ജീവിതം എങ്ങനെ ആയിരുന്നു ഒരു പക്ഷേ അത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടായിരിക്കും അവർക്ക് ഇപ്പോൾ ഉള്ള ഈ ഒരു നിലയിലോട്ടെത്താൻ സാധിച്ചിട്ടുണ്ടാവുക അപ്പോൾ എനിക്ക് കൂടുതൽ ഒരുപാട് മഹത് വ്യക്തികളുടെ ജീവചരിത്രങ്ങൾ വായിക്കാൻ കൂടുതൽ ഇഷ്ടമാണ് അതുപോലെ തന്നെ പിന്നെ കഥകളാണ് ഒരുപാട് അതായത് എനിക്ക് ഇഷ്ടപ്പെടുന്ന കഥകൾ ഇപ്പോൾ കഥകൾ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ഇങ്ങനെ ഗ്രാമങ്ങളിൽ ഉള്ള കഥകൾ കഥ ഒരുപാട് ഞാൻ വായിക്കാറുള്ളത് ജീവചരിത്രങ്ങളാണ് ഒരുപാട് മഹത് വ്യക്തികളുടെ ജീവചരിത്രങ്ങൾ അത് വായിക്കുമ്പോൾ എനിക്ക് ഒരുപാട് മോട്ടിവേഷൻ അതിൽ നിന്നും എൻ്റെ ജീവിതത്തിലോട്ട് പകർത്താൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും അപ്പോൾ ഞാൻ കൂടുതൽ വായിക്കുന്നത് ഒരു മഹത് വ്യക്തികളുടെ ജീവചരിത്രങ്ങൾ ആണ്